ഞാൻ ഒരു ഗ്രാമപ്രദേശത്താണ് ജീവിക്കുന്നത് ഞങ്ങളുടെ അങ്ങോട്ടുള്ള കടകളും അതായത് പലചരക്ക് കടകളെ ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഒരു പെട്ടിക്കടകൾ പോലത്തെ അങ്ങനത്തെ ഒരു സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് അല്ലാണ്ട് വലിയ വലിയ സൂപ്പർമാർക്കറ്റ് പോലെയുള്ളതൊക്കെ നമ്മൾ കുറച്ച് കൂടൊരു ടൗൺ ഏരിയയിലേക്ക് അല്ലെങ്കിൽ ആൾത്തിരക്കുള്ള ഏരിയയിലേക്ക് പോകുമ്പോൾ മാത്രമാണ് കാണുന്നത് ഇപ്പം ഞങ്ങളുടെ ഗ്രാമപ്രദേശത്തേക്ക് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ കടകൾ അത്യാവശ്യ സാധനങ്ങൾ കിട്ടുന്ന പലചരക്ക് കടകളാണ് നമുക്കുള്ളത് അതിൽ തന്നെ നമുക്ക് ഇപ്പം വീട്ടിലേക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മേടിക്കാൻ അത്യാവശ്യ സാധങ്ങളുണ്ട് അതായത് ഉപ്പ് പിന്നെ എന്താണ് നമുക്ക് വീട്ടിലേക്ക് അരി ആവശ്യമാണ് പഞ്ചസാര തേയിലപ്പൊടി കാപ്പിപ്പൊടി പിന്നെ പൊടി ഐറ്റംസ് ഉണ്ടല്ലോ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി സാമ്പാർ പൊടി അതുപോലെ തന്നെ ഇപ്പം ഇറച്ചി വയ്ക്കണമെങ്കിൽ ഇറച്ചി മസാല മീൻ വയക്കണമെങ്കിൽ മീൻ മസാല പിന്നെ നമുക്ക് എണ്ണ ആവശ്യമാണ് എണ്ണ തന്നെ നമുക്ക് പലതരം എണ്ണകളുണ്ട് സൺഫ്ലവർ ഓയിലുണ്ട് പാമോയിലുണ്ട് പിന്നെ വെജിറ്റബിൾ ഓയില് വേറെയുണ്ട് അല്ലാണ്ട് വെളിച്ചെണ്ണയുണ്ട് ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ നമുക്ക് മായമുള്ളതും മയമില്ലാത്തതൊക്കെ കിട്ടുന്നതാണ് പിന്നെ പിന്നെ പിന്നെ നമുക്ക് എന്താണ് കുളിക്കുന്ന സോപ്പ് അലക്കുന്ന സോപ്പ് മൈദ ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി തന്നെ ആട്ട പിന്നെ റവ

ചാക്കരി അങ്ങനെ ഉണ്ട് പിന്നെ നമുക്ക് എന്താണ് ഉള്ളത് വിനാഗിരി രസപ്പൊടി അച്ചാറ് പൊടി ഉലുവ കടുക് ജീരകം പെരും ജീരകം അങ്ങനെ നമുക്ക് പല പല സാധനങ്ങളെല്ലാം ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടാറുണ്ട് പിന്നെ വില പേശാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന ആളുകളൊക്കെ അവരുടെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ആ ഒരു ചെറിയ കടയായിരിക്കും അപ്പം നമ്മൾ എങ്ങനെ വില പേശാൻ പോകാറില്ല എങ്കിലും അന്യായമായി മേടിക്കുന്നത് കാണുകയാണങ്കിൽ മാത്രമേ നമ്മൾ അതിനെപ്പറ്റി നമ്മൾ ചോദിക്കാറൂള്ളു എന്നതിനെ പറ്റി എന്തുകൊണ്ടാണങ്ങനെ ചെയ്യുന്നേ എന്നാലും ഒരു സാധാരണ ഒരു കടയിൽ പോയി ചോദിച്ച് കഴിഞ്ഞാ അവിടെ നമുക്ക് വില കൂടുതലാണ് വില കൂടുതലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേറെ കടയിലും കൂടെ അന്വേഷിക്കും അതായത് ഈ കടയെ അപേക്ഷിച്ച് നോക്കുമ്പം മറ്റേ കടയിലാണോ ലാഭമെന്ന് നോക്കും കാരണം നമ്മൾ സാധാരണക്കാരായ മനുഷ്യരാണല്ലോ അപ്പം നമ്മൾ ഇപ്പം അവർ ചുമ്മാ കൊള്ളയടിക്കുവാണന്ന് നമുക്ക് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കടയേക്കാളും കൂടുതലാണ് മറ്റൊരു കട വാങ്ങിക്കുന്നതെന്ന് തോന്നി കഴിഞ്ഞാൽ തോന്നിക്കഴിഞ്ഞാ നമ്മൾ ഇടയ്ക്ക് വില പേശാൻ പോകാറുണ്ട് അല്ലാണ്ട് കടമായിട്ട് നമ്മൾ നില നിർത്താറില്ല പിന്നീട് പണം കൊടുക്കുന്നത് ആ ഒരു സംഭവവില്ല കാരണം എല്ലാവരും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് അവനവൻ്റെ അവനവൻ്റെ അന്നത്തിന് വേണ്ടിയിട്ടാണ് അന്നന്ന് ജീവിച്ച് പോവാനുള്ള വകക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും തന്നെ കഷ്ടപ്പെടുന്നത് ഈ പാവപെട്ട പലചരക്ക് കടക്കാർ ഞങ്ങളുടെ അവിടെ താമസിക്കുന്നത് ആണേലവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് വില പേശാൻ അത്യാവശ്യം ഞങ്ങൾക്ക് ഇത് തെറ്റാണ് അല്ലെങ്കിൽ അന്യായമായി മേടിക്കുന്നു എന്ന് തോന്നിയാൽ മാത്രം വില പേശുകയും അല്ലാത്ത പക്ഷം ഞങ്ങളാണങ്കിൽ പൈസ കൊടുത്ത് സാധനങ്ങൾ അന്നേരം വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഞങ്ങൾ അവിടെ ചെയ്യുന്നത് പിന്നീട് പലചരക്ക് കടകളെല്ലാം ചെറുതാണ് പിന്നെ ഞങ്ങൾക്ക് അവിടെ തികയാതെ വരും അതായത് നമ്മുടെ സാധാരണ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള പലചരക്ക് കടയിൽ നിന്നും ഉള്ള ആവശ്യമുള്ള സാധനങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ നമ്മളാണങ്കിൽ പുറത്തുള്ള സൂപ്പർമാർക്കെറ്റുകളിൽ പോയിട്ട് എന്തേലും വാങ്ങിക്കാറുണ്ട് അതായത് ഇപ്പം തൈര് തൈര് അതുപോലെയു ള്ള സാധനങ്ങൾ ഇപ്പം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊരു കേക്കോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കക്കണെ നമുക്ക് കുറച്ച് ഉണക്ക മുന്തിരിയോ അല്ലേ കപ്പലണ്ടിയോ അങ്ങനെ എന്തെങ്കിലും നട്സ് അങ്ങനത്തെ സാധനങ്ങൾ ആവശ്യം വരുമ്പോൾ നമ്മൾ സൂപ്പർമാർക്കറ്റുകളിൽ പോയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ കേക്കുകൾ മാത്രമല്ല നമുക്ക് വേറെ സോസുകളോ അങ്ങനെ വലിയ വലിയ ഈ പ്രത്യേക വെസ്റ്റേൺ സ്റ്റൈലിലൊക്കെ ഇതിപ്പം നമുക്ക് ഇറ്റാലിയൻ സ്റ്റൈല് ചൈനീസ് സ്റ്റൈല് അങ്ങനെയുള്ള രീത്യിൽ പല തരത്തിൽ പാചകം ചെയ്യാൻ പറ്റുകയുള്ളൂ പല തരത്തിലുള്ള ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ഈ ചെറിയ ചെറിയ പല ചരക്ക് കടയെ മാത്രം ആശ്രയിച്ച് കൊണ്ട് എല്ലാ സാധനങ്ങളും കിട്ടണമെന്നില്ല അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ പുറത്ത് സൂപ്പർമാർക്കറ്റുകൾ അങ്ങനെയുള്ള അവിടെ പോയി നമ്മൾ വാങ്ങിക്കാറുണ്ട്